ഹലോ ഞാനിത് പിന്നെ ഒരു പിന്നെ ഒരു സ്ഥലം നിങ്ങടെ സ്ഥലത്തെ പറ്റി അറിയാൻ വേണ്ടീട്ട് വിളിക്കുകയാ ഒരു ടൂറിസ്റ്ററാണ് അതെ അതെ എനിക്ക് നിങ്ങളുടെ സ്ഥലത്തെപ്പറ്റിയൊക്കെ ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പ്ലെയ്സ് കാണാനും എക്സ്പ്ലോർ ചെയ്യാനുമൊക്കെ ആ എന്താണ് നിങ്ങടെ തൊഴിൽ ഓ ലോട്ടറി കച്ചവടത്തിന് നല്ല വരുമാനമൊക്കെ ഉണ്ടാവുമോ ആ ജീവിത ജീവിക്കാനൊക്കെ ഉള്ള വകയൊക്കെ കിട്ടുന്നുണ്ടല്ലേ അതെ അതെ അതെയല്ലേ ആ പിന്നേ ആ ഉണ്ട് അതെയല്ലോ ആ ആ ആണല്ലേ ആ എന്നെങ്കിൽ നിങ്ങട സ്ഥലമെവിടെയാണ് ഞാനങ്ങോട്ട് വരാമായിരുന്നു ഓ ആ റൂട്ട് മേപ്പ് ആ റൂട്ട് മാപ്പൊന്ന് ഇട്ടായിരുന്നാൽ കുഴപ്പമില്ല ഞാനിത് പിന്നെ കുറച്ച് ദൂരെയാണ് എറണാകുളത്തുനിന്ന് വിളിക്കുകയാ അ ആ ഇല്ല ഇതാദ്യമായിട്ടാ എടുക്കാൻ പോകുന്നത് എനിക്കിതിൻ്റെയൊരു ഏജൻസി എടുക്കാൻ താൽപ്പര്യമുണ്ട് ശരി എങ്കിൽ ബായ് താങ്ക് യൂ